ഇത് മഞ്ചേരിത്തെ ഫർസാന ഹോട്ടലല്ലേ ഞാന് രാവിലെ വിളിച്ചിരുന്നു എനിക്ക് ഒരു ബിരിയാണി ഇറച്ചി വരട്ടും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ഇപ്പോള് ഒരു മണിക്ക് കിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് എനിക്ക് ഓർഡര് ഓർഡര് ഒഴിവാക്കേണ്ടി വരും കാരണം എനിക്ക് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് സാധനം കിട്ടേണ്ടിയിരുന്നു വീട്ടില് കുറേ വിരുന്നുകാരൊക്കെ വരുന്നതുകൊണ്ടാണ് ഭക്ഷണം ഓർഡര് ചെയ്തത് പക്ഷേ ഇപ്പോള് ഒരു മണിക്ക് കിട്ടിയതുകൊണ്ട് സാരമില്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പത്തേന് കിട്ടണം അതുകൊണ്ടുതന്നെ ഞാന് അയച്ചു പൈസ തിരിച്ച് അയച്ച് തരണം